ഹലോ ഹലോ ആ ഉണ്ട് പറയെടീ ആ അ ആ നീ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഓടൊക്കെ വെച്ചിട്ട് ആ ആ ആ ആ അതുപോലെയുള്ളതാണോ ആ അതുതന്നെ വേണോ ആ അത് അങ്ങനത്തെ ഒരു വീടിവിടെ അടുത്തുണ്ട് പിന്നെ ഇവിടെ കുറച്ചങ്ങോട്ട് നിനക്ക് ടൗൺ ഏരിയയിൽ അല്ലെങ്കിൽ ഉ ഉള്ളിലോട്ടുള്ള സ്ഥലം ആയാൽ കുഴപ്പമുണ്ടോ ആ ആ അപ്പോൾ അവിടെ കുറച്ച് ഉള്ളിലോട്ടാണ് ഒരു ചെറിയൊരു ഇടവഴിയിയിലുള്ളൊരു റോട്ടിലൂടെ പോവണം ആ വണ്ടി പോകും പിന്നെ പക്ഷേ ഓ ഒരു വീടിൻ്റെ മുന്നിൽ വണ്ടി പോവും പിന്നെ വേറൊരു അതുപോലെ നീ പറഞ്ഞൊരു വീട് തന്നെ ഉണ്ട് അപ്പോൾ അത് അതിന്റെ മുന്നിൽ വണ്ടി പോവില്ല അപ്പോൾ വണ്ടി പോവുന്ന വീടാണല്ലേ വേണ്ടത് ആ അപ്പോൾ അങ്ങനെയുള്ളത് ഒന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു നാലുകെട്ടായിട്ട് നടുവിൽ ഒരു കുളം ഒക്കെയുള്ള വീടാണ് പിന്നെ പിന്നെ ഫർണിച്ചർ ഒക്കെ വേണോ ഫർണിച്ചർ അവിടെത്തന്നെ ഉണ്ട് ആ വീട്ടിൽ തന്നെ ഇപ്പോൾ

ആ ആ ഉണ്ട് ഉണ്ട് മരത്തിൻ്റെ കൊത്ത് പണികളൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട് പിന്നെ അത് ആ ആ അപ്പോൾ ഈ പിന്നെ ഫർണിച്ചർ ഒക്കെ ഉണ്ട് ഒരു വീട് എട് എടുത്തിട്ട് അതിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം അത് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ പുതിയ പുതിയ വീട് പോലെത്തന്നെ ഉണ്ട് പഴയ വീടുമല്ല പുതിയത് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ഒരു നിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ആ ആ ഇതിനിപ്പോൾ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് പിന്നെ ഇതൊരു പ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലവും പിന്നെ വീടും പിന്നെ അടുത്ത് ചുറ്റുവട്ടത്തൊക്കെ നല്ല മരങ്ങളും നല്ല ഒരു പ ചുറ്റുവട്ടം ഒക്കെ നല്ലൊരു നല്ലൊരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടൊരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പറ ചോദിക്കുന്നത് അവരെ ഞാനൊന്ന് പറഞ്ഞ് നോക്കാം അവരോട് കുറച്ച് കുറച്ചൊരു ഒരു അമ്പതിനായിരം രൂപയൊക്കെ കുറച്ച് തരാണ്ടിരിക്കില്ല ഞാനേ അവരോട് ആ ഞാൻ വിളിച്ച് ചോദിച്ച് നോക്കാം പിന്നെ അവർ നി നിനക്കൊന്ന് നീ എവിടെയാണ് ഉള്ളത് ഇപ്പോൾ കോഴിക്കോടുണ്ടോ ആ ഇന്നോ ഇല്ല നാളെയോ മറ്റോ ഇങ്ങോട്ട് വരുന്നുണ്ടോ ആ ആ എന്നാൽ പിന്നെ ഞായറാഴ്ച്ച വന്നിട്ട് നിന്നെയും കൂട്ടിയിട്ട് ഒന്ന് പോവാം അതിന് മുന്നെ ഞാൻ ഒന്ന് സംസാരിച്ച് വയ്ക്കാം ഇങ്ങനെ ഇതുണ്ടെന്ന് എന്നിട്ട് നീ വന്ന് ആക്ക് ആ ആ ആ വീടും സ്ഥലവും ഒന്ന് കണ്ട് നോക്ക് അങ്ങനെയാണെങ്കിൽ പറ്റുവെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ഫർണിച്ചർ ഒന്നും വാങ്ങേണ്ടി വരില്ല വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി അതൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ പുതിയത് പോലെ തന്നെയാണ് ആ പിന്നെ ട്ര ട്രഡീഷണൽ വീട് എന്നേയുള്ളൂ പിന്നെ നിലം ഒക്കെ ടൈൽ ഒക്കെ തന്നെയാണ് നല്ല കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഓ കിണറൊക്കെയുണ്ട് കിണറുണ്ട് പിന്നെ കിണർ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ കുഴൽ കിണറല്ല പിന്നെ സാദാ കിണർ തന്നെയാണ് ഇങ്ങനെ കറന്റ് ഒക്കെ ഇല്ലെങ്കിൽ വെള്ളം കോരി എടുക്കാമല്ലോ ആ വെള്ളം നല്ല വെള്ളമാണ് ഒരു കുഴപ്പം ഒന്നുമില്ല ഞാൻ ക ഞാൻ കണ്ടിട്ട് കുഴപ്പം ഇപ്പോൾ കുറച്ചായി ഞാൻ പോയിട്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്ന് പോയി നോക്കട്ടെ വീട്ടിൽ ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം ആ എന്നാൽ ഓക്കെ